ഹലോ ഇത് ഹോട്ടൽ മഹാറാണിയല്ലേ നിങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ഹോട്ടലായിരുന്നു അല്ലേ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയെ ആയിളളായിരുന്നു അല്ലേ ഞാനിങ്ങനെ പറയുന്നത് കേട്ട് ഒത്തിരിപ്പേർ വളരെ നല്ല ഫുഡാണല്ലോ ഫുഡാന്നാ അവിടെ ഉള്ളവർ പറയുന്നത് കേട്ടത് അവിടത്തെ കുഴിമന്തി സ്പെഷ്യൽ ആന്ന് പറഞ്ഞു ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വാങ്ങിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം ആയിരുന്നു അതുപോലെ എൻ്റെ വേ ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ട് വളരെ നല്ല അഭിപ്രായാ അവൾ പറഞ്ഞത് നിങ്ങടെ ഈ സ്പെഷ്യലിന് ആയിട്ട് നിങ്ങൾ എന്ത് മസാലയാ അതിൻ്റകത്ത് ചേർക്കുന്നത് അതെയോ ഈ സാധാരണ എല്ലാവരും ചേർക്കുന്ന പോലെയാണോ നിങ്ങൾക്ക് ഹോം ഡെലിവെറി അവൈലബിളാണോ എനിക്ക് ഹോം ഡെലിവെറി അവൈലബിളാണേ എന്നെ ഒന്നറിയിക്കണേ എനിക്കങ്ങോട്ട് വന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ടാ സമയം കിട്ടുമ്പോൾ ഞാൻ വന്നോളാ ഇനി ഹോം ഡെലിവെറി അവൈലബിളാണ് എങ്കിൽ നിങ്ങൾ എന്നെ ഒന്നറിയിക്കണേ അതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു ആണോ ആ ആ റേറ്റ് ഏതായാലും മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണല്ലോ ആ നല്ല കുഴിമന്തിയാ എന്ന് എല്ലാവരും പറഞ്ഞു അതുപോലെ അവിടത്തെ ബിരിയാണി ദം ബിരിയാണി കപ്പ ബിരിയാണി ഇതൊക്കെ സ്പെഷ്യൽ ആന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇത് ശരിക്കും എവിടെ ആയിരുന്നു ലൊക്കേഷൻ ആ ഹാ ഹാ ആ കറക്റ്റ് ടൗണി തന്നെ ആണോ ആ ഞാൻ വന്നോളാ ഇനി നിങ്ങൾ എന്തുകൊണ്ടാ ഹോം ഡെലിവെറി ചെയ്യാത്തത് എല്ലാവരും പറയുന്നു നിങ്ങൾ ഹോം ഡെലിവെറി ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്സ് ആകാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് അറിയിക്കണേ ആ ഓക്കെ ഓക്കെ അവിടെ ഊ ഊണിന് എന്തൊക്കെയാ സ്പെഷ്യലായിട്ട് കറികളുള്ളത് ഓഹ് ഓഹ് ശരി ശരി ആ ആ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറെനിക്കൊന്നു വാട്സ്ആപ്പ് ചെയ്യണേ ശരി ശരി ഓക്കെ